ഹലോ കെ സി പി ആണോ ആ അതെ അതെ അത് ഞാൻ വിളിച്ചത് എൻ്റെ കഴിഞ്ഞ മാസത്തെ എന്താണ് കെ സി പിയിൻ്റെ ബിൽസിൻ്റെ ഒരു ഡൂപ്ലിക്കേറ്റൊന്നു കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അല്ല എന്താ കഴിഞ്ഞ മാസത്തെ മാത്രം മതി അതിൻ്റെ ഒരു കണക്ക് നോക്കണം എന്നുണ്ടായിരുന്നു അപ്പം ആ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അല്ല അല്ല എന്നു തരാൻ പറ്റും അല്ല അല്ല എല്ലാ മാസത്തെയും വേണം എന്നു നിർബന്ധമില്ല കഴിഞ്ഞ മാസത്തെ മാത്രമൊന്നു കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഒരു വേറൊരു ആവശ്യത്തിനു വേണ്ടിയിട്ട് നമ്മൾക്ക് നോക്കണമായിരുന്നു അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയൊന്നു അറിയാൻ വേണ്ടിയിട്ട് എൻ ആ അതെ അതെ അതെ അപ്പം നിങ്ങൾക്ക് എത്ര ദിവസംകൊണ്ട് ഇനി കാര്യങ്ങളൊക്കെയൊന്നു തരാൻ പറ്റും ഇന്നുതന്നെ തരാൻ പറ്റുമോ അതോ ആ ഫയലിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഓക്കെ ഓക്കെ ഓക്കെ ആണോ ഓക്കെ താങ്ക് യു താങ്ക് യു